ഹലോ ഹലോ ആരായിരുന്നു

നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ പച്ചക്കറിയാണ് വേണ്ടത്

ആ നമുക്ക് തക്കാളി ഒക്കെ തക്കാളി ഒക്കെ ഇല്ലേ നമ്മൾ നമ്മൾ ഹോൾസെയിൽ ആണ് അതുകൊണ്ട് വലിയ റേറ്റ് ഒന്നും ഇല്ല നമുക്ക് ഇവിടെ തക്കാളിക്ക് ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ ഒക്കെയേ ഉളളൂ

ആ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇനി തൊട്ട് നിങ്ങൾ ഇവിടുന്ന് തന്നെ എടുത്തോളൂ കുഴപ്പം ഒന്നും ഇല്ല നമ്മൾ ഹോൾസെയിൽ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ കടയിലേക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ തക്കാളി ഉണ്ട് വെണ്ടയ്ക്ക ഉണ്ട് വഴുതന ഉണ്ട് എല്ലാം നമ്മൾ ജൈവവളം ആ ഒരു ഇതിൽ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ആ എളവൻ ഉണ്ട് മുരിങ്ങ ഉണ്ട് മ് പിന്നെ കരിവേപ്പില അങ്ങനെ കരിവേപ്പില മല്ലി അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ബൾക്ക് ആയിട്ട് ആണെങ്കിൽ നിങ്ങൾ നമുക്ക് ഒരു ഒരു ഓർഡർ തന്നാൽ തരുവാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കൊണ്ട് എത്തിച്ച് തരാം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ അങ്ങനെയും കുഴപ്പം ഇല്ല ആ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി ഇല്ല ഇല്ല ഇല്ല നമ്മൾ ഇവിടെ കോഴിക്കോട് താമരശ്ശേരി മൊയ്ദുപ്പാലം കഴിഞ്ഞിട്ട് മ് അതെ അതെ കോഴിക്കോട് ടൗൺ ഒന്നും എത്തേണ്ട വേണ്ട ആ അതെ അതെ ആ നിങ്ങൾ എടുത്ത് തരുന്നത് നമ്മൾ വേണമെങ്കിൽ എത്തിച്ചുതരണമെങ്കിൽ എത്തിച്ചുതരാം എങ്ങനെ ആണെങ്കിലും കുഴപ്പം ഇല്ല നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വേണം നിങ്ങൾ എത്ര എടുക്കുന്നുണ്ടെന്ന് ഒക്കെ നമ്മൾ ആദ്യം അറിയുവാണെങ്കിൽ നമുക്ക് അത് പറിച്ച് വയ്ക്കണം കാരണം ഇവിടുന്ന് തന്നെ ആയതുകൊണ്ട് ആ നമ്മൾ ഫ്രഷ് ആയിട്ടാണ് കൊടുക്കുന്നത്

ആ നിങ്ങൾ ഇപ്പം തലേന്നേ പറയണം ഏ നമുക്ക് രാവിലെ കുറച്ച് പണിക്കാരും ആയിട്ട് നമുക്ക് പറിച്ച് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് റെഡി ആക്കി വയ്ക്കണമെങ്കിൽ നിങ്ങൾ തലേന്ന് പറയണം എന്തൊക്കെയാണ് എത്ര എത്ര വെച്ച് വേണം നമ്മൾ ഓവർ ആയിട്ട് പറിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി അല്ലേ പെട്ടെന്ന് കേടായി പോവില്ലേ ചെടിയിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ പറിച്ച് വെച്ചാൽ ഇരിക്കില്ലല്ലോ ആ നാളെ ആണോ ആ അപ്പം നിങ്ങൾ എന്താണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു വാട്ട്സ്ആപ്പിൽ ഒരു ഇതിട്ടേക്കാം അപ്പം നിങ്ങൾ അത് നോക്കി നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി മ് ഞങ്ങൾ അങ്ങനെ ആണെങ്കിൽ നാളെ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ ഓക്കെ